ആ മേഡം ഞാൻ ഞാൻ പുറത്തുനിന്ന് വിളിക്കുന്നതായിരുന്നു എറണാകുളത്ത് നിന്ന് ആയിരുന്നേ ആ മേഡം വെജിറ്റബിൾസിന്റെ സെയിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരുന്നേ ആ മേഡം ഇപ്പം ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് ഇപ്പം സെയിൽ ചെയ്യുന്നത് ആ ഓക്കേ ആ ഓക്കേ നമുക്കപ്പോൾ ഇതിൻ്റ ക്വാണ്ടിറ്റി അത്യാവശ്യം ബൾക്ക് ആയിട്ട് തന്നെ നമുക്ക് ആവശ്യം ഉണ്ട് നമ്മൾ അത്യാവശ്യം കൂടുതൽ എടുക്കാനുള്ള പ്ലാനിൽ ആണ് ആ നമുക്കിങ്ങനെ പുറത്തേക്ക് കൊണ്ട് പോയിട്ട് അവിടെ സൂപ്പർമാർക്കറ്റിലൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഓരോ സൂപ്പർ മാർക്കറ്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് അപ്പോൾ മേഡത്തിൻ്റെ അടുത്തുള്ളത് എന്തോരം ആണോ അത് ഫുൾ ആയിട്ട് ഞങ്ങൾ എടുത്തോളാം അല്ല മേഡം ഇപ്പോൾ ആ ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഞങ്ങൾ എടുത്തോളാം മേഡം അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കുഴപ്പം ഒന്നുമില്ലല്ലേ ആ ഓക്കേ അപ്പം മേഡം എന്നത്തേക്കാണ് ഞങ്ങൾ വരേണ്ടത് മേഡം എന്നായിരിക്കും ഫ്രീ ആവുക കുഴപ്പം ഒന്നുമില്ല ആ ഓക്കേ ഓക്കേ അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും വരാം അപ്പോൾ ആ ഓക്കേ നേരിട്ട് വന്നിട്ട് നമുക്ക് കണ്ടിട്ട് അതിന്റെ കോ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള സാധനം തന്നെയാണോ ആ ഓക്കേ ഓക്കേ ആയിക്കോട്ടെ മേഡം അപ്പം ഞങ്ങൾ എന്തായാലും ബൾക്ക് ആയിട്ട് തന്നെയാണ് എടുക്കുക അപ്പോൾ മേഡത്തിനോട് നേരിട്ട് കണ്ടിട്ട് ബാക്കി നമുക്ക് ഡീലും കാര്യങ്ങളൊക്കെ സംസാരിക്കാം റേറ്റും കാര്യങ്ങളും എന്തായാലും ഫുൾ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തോളാം

ആ മേഡം കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് എറണാകുളം തന്നെയാണല്ലേ ആ ഓക്കേ ഓക്കേ

ആ ആയിക്കോട്ടെ മേഡം ഞാൻ എന്തായാലും കോൺടാക്റ്റ് ചെയ്തിട്ടേ വരുള്ളൂ ആയിക്കോട്ടെ മേഡം